നൃത്ത ജീവിതത്തിലെപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോയെന്നു ചോദിച്ചാൽ ചെയ്ത് വന്നിട്ടുണ്ട് പറഞ്ഞാൽ നൃത്തത്തിനു വേണ്ടി വീട് വീട്ടുകൾ ഞാന് പ്രെഗ്നെൻറ്റായിരുന്ന സമയത്തും കുഞ്ഞു വാവ ഉണ്ടായിരുന്ന സമയത്തും എനിക്ക് പോകാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് അപ്പോള് പല സ്ഥലങ്ങളിലും എന്നെ വിടത്തില്ല എന്നു പറഞ്ഞാൽ ഹസ്ബൻറ്റിൻ്റെ വീട്ടില്നിന്ന് നമ്മള്ക്ക് നമ്മുടെ ജീവിതമല്ലേ ഒരു കുടുംബമാവുമ്പോള് കുടുംബ ജീവിതത്തീന്ന് നമ്മള്ക്കിഷ്ടം എനിക്കിപ്പോള് ഡാൻസ് ഇഷ്ടമാണെങ്കില് എനിക്ക് ഇറങ്ങി പോവേണ്ടി വരും എനിക്ക് പോകണം അങ്ങനെ നമ്മള്ക്ക് പ്രെ ഒരു അനുകൂലമായ ഒരു സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത് അപ്പോള് നമ്മള്ക്ക് അതിനകത്തുനിന്നു നമ്മള്ക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പല പല പല സിറ്റുവേഷനും എന്നു പറഞ്ഞാല് ഒരുപാട് സങ്കടപ്പെട്ട് പോകാൻ പറ്റാത്തേ പറ്റാതിരുന്നിട്ടും വീട്ടുകാരുടെ വീട്ടുകാര് വിടാതിരുന്നിട്ടും എനിക്ക് കളിക്കണം എന്നുണ്ട് പക്ഷെ എൻ്റെ ശാരീരികപരമായ പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ എന്നെ വീട്ടില്നിന്ന് വിടാതിരുന്ന പ്രശ്നങ്ങള് കൊണ്ടും പിന്നെ പല പല ഭാഗത്തു നിന്നും പുറത്തുള്ള നമ്മക്ക് നമ്മുടെ ജീവിതമാകുമ്പോള് പുറത്തുള്ള സാഹചര്യം നമ്മള്ക്ക് നമ്മളിടപെടുന്ന നമ്മടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങള് അങ്ങനെ പല പല നമ്മളെ കുറിച്ച് പലരും പലതും പറയുമ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസിക പ്രശ്നങ്ങള് അങ്ങനെ നമുക്കതില് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോള് കളിക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം ഇപ്പോള് ഒരു സമയത്ത് എനിക്ക് പറ്റിയില്ലാ എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഈ സമയത്ത് ഇപ്പോഴും ഇങ്ങനെയൊരു ഇത്രയൊരു ഏജ് ആയ സമയത്താണെങ്കിലും എനിക്ക് കളിക്കണം എൻ്റെ ശരീരത്തിന് അത് സാധിക്കും എന്നും പറഞ്ഞ് ഉറച്ച് ഞാൻ അതില് നില്ക്കുകയും ഇപ്പോഴും സ്കൂളുകളിലെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനും അതുപോലെ പള്ളികളിലെ പല പല ആവശ്യങ്ങൾക്കും മുമ്പോട്ട് വരാനും പലത് ചെയ്യാനും എല്ലാവരോടും എല്ലാവരോടും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതില് അവര് അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി കുട്ടികളെയെല്ലാം ഒരുമിച്ച് കൊണ്ടു പോവാനും പല പ്രശ്നങ്ങളില് അവര് അഭിമുഖീകരിക്കുമ്പോൾ അതിന് ഡാൻസിൻ്റെ പ്രശ്നങ്ങളാവുമ്പോള് അതില് എങ്ങനെ അതില്നിന്നു തരണം ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ അവരുടെ ബുദ്ധിമുട്ടുകളില് ഇങ്ങനൊരു കേസില് അവരുടെ ഡ നൃത്തത്തിൻ്റെ ഒരു കേസില് പേരൻറ്റ്സ് എതിരു നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ പറഞ്ഞ് മനസിലാക്കാം എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് അതിനെ ഞാനെങ്ങനെ മറികടന്ന് മുമ്പോട്ട് വന്നു എന്ന് അതിനെ എങ്ങനെ അഭിമീകരിച്ചു ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ എങ്ങനെ മറികടന്നു എന്നുള്ളത് പേരൻറ്റ്സിനോട് പറഞ്ഞുകൊടുത്ത് അതിനെ ഒരു ഡാൻസ് എന്നൊരു സംഭവം ഉണ്ടാവുമ്പോള് അതില് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതായത് ഒരാള് ഇപ്പോള് കുറ്റം പറയുന്നു അടുത്തയാള് അവള് കളിച്ചത് ശരിയായില്ല ഇല്ലെങ്കില് അവള് അതിന്റെയൊപ്പം വന്നില്ല ഇല്ലേ ടീച്ചര് അവളെ ശരിക്ക് പഠിപ്പിച്ചു എൻ്റെ മോളെ പഠിപ്പിച്ചില്ല അപ്പോള് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം അവരുടെ മാതാപിതാക്കൾക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് കുട്ടികളെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും മുമ്പോട്ട് കൊണ്ടുവരാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ദൈവം നമുക്ക് ഒരു കഴിവല്ലല്ലോ പല പല കഴിവുകളാണ് കുട്ടികളാണെങ്കിലും പല അവർക്ക് ഒരു കഴിവല്ല പല കഴിവുകളുള്ള കുട്ടികളാണ് അപ്പം എല്ലാവരും ഒരുപോലെയല്ല എന്ന് മാതാപിതാക്കൾക്കാണേലും കുട്ടികൾക്കാണേലും പറഞ്ഞുകൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവരോട് പല ഉദാഹരണങ്ങളുടെ എൻ്റെ ജീവിതത്തില് ഞാൻ അനുഭവിച്ചത് പോലെ അവരെ അങ്ങനെ ഒരു ഒരു വീടിനുള്ളിൽ തന്നെ ഒതുക്കി വളർത്താതെ പുറം ലോകവുമായി ഡാൻസാണെങ്കിലും പാട്ടാണെങ്കിലും എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മള്ക്ക് കിട്ടിയ കഴിവുകള് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പേരൻറ്റ്സിനാണെങ്കിലും ഇപ്പോള് ഞാൻ പേരൻറ്റ്സിനോടാണെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളെ വിടാനും അതുപോലെ കുട്ടികള് പരസ്പരം എന്ത് പ്രശ്നമുണ്ടായാലും അതങ്ങനെ ചെയ്യരുത് ഇല്ലെങ്കില് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മുന്നോട്ട് വരണം ചെയ്യണം എന്നൊക്കെ അവരോട് പറഞ്ഞ് കൊടുക്കാറുമുണ്ട്